വളർത്തുമൃഗങ്ങൾ എന്നു പറയുമ്പോൾ നമുക്ക് പശു ആട് കോഴി താറാവ് ഇതുപോലുള്ള മൃഗങ്ങളെ നമ്മുടെ വീട്ടിൽ വളർത്തുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒന്ന് പശുവിൻ്റെയാ എന്ന് പറഞ്ഞാലും നമുക്ക് പാൽ വിറ്റ് നമുക്ക് നമ്മുടെ ജീവിതമാർഗം തേടാം അതുപോലെ തന്നെ ചാണകവും ഉണ്ട് ചാണകം ഉണക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഇതാണ് കോഴി കോഴിയുടെ മുട്ട മുട്ട വിറ്റാൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗമാണ് അതുപോലെ തന്നെ ആട് ആട്ടിൻ കുട്ടികളെ കൊടുത്താൽ നമുക്ക് നല്ലൊരു തുക കിട്ടും അതുപോലെ തന്നെ ആട്ടിൻ പാൽ വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് പിന്നെ താറാവ് താറാവായാലും താറാവ് മുട്ട അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വളർത്തുമൃഗങ്ങൾ വഴി നമുക്ക് നല്ല രീതിയിൽ ഇപ്പം വളരെ അന്യം നിന്ന് പോക്കോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കാരണം പശു പണ്ടുള്ള കാലത്ത് എന്ന് പറഞ്ഞാൽ പശുവിനെയൊക്കെ അതൊക്കെ ഇത് അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ മാർഗങ്ങൾ ഇപ്പം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ടും ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നതുകൊണ്ട് ആൾക്കാർ ഒഴിവാകാൻ അതായത് അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം കണ്ടു വരുന്നത് എങ്കിലും നമ്മുടെയൊക്കെ നാടുകളിൽ ഇപ്പോഴും ആടായിട്ടും കോഴിയായിട്ടും പശുവായിട്ടും താറാവായിട്ടും ഒക്കെ ജീവിതമാർഗങ്ങൾ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു പോകുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്